ഹലോ ഇത് കെ കെ എസ് മോട്ടോർസ് അല്ലെ ഞാൻ നിങ്ങളുടെ വണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതായിരുന്നു നമ്മൾക്ക് രണ്ട് വണ്ടി വേണമായിരുന്നു ഒരു നാലു പേർക്ക് ഇരിക്കാൻ പറ്റുന്നതും ഒരു ആറു പേർക്ക് ഇരിക്കാൻ പറ്റുന്നതും ആയിട്ടുള്ള ഒരു വണ്ടിയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പിനു പോവുകയാണ് കാട്ടിക്കുളം ടു മൈസൂർക്കാണ് ട്രിപ്പ് അപ്പോൾപ്പിന്നെ ലെഗേജൊക്കെ ഉണ്ടാവും അതിനുള്ള സ്ഥലമൊക്കെ ഉണ്ടോയെന്നൊക്കെ അറിയാനായിട്ടാണ് വിളിച്ചത് അപ്പം എങ്ങനെയാണ് ഫുഡ്ഡൊക്കെ നമ്മൾ കൊണ്ടുപോവുകയാണ് അപ്പം കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ കറക്ടൊരു എട്ടു മണിയാവുമ്പം ഇറങ്ങിയാലവിടെ കൃത്യ സമയത്ത് എത്തൂ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടൈം ഷെഡ്യൂളനുസരിച്ച് നമുക്ക് തിരിച്ച് വരാനൊക്കെ കഴിയുകയുള്ളൂ അപ്പം അതിന് വേണ്ടി വിളിച്ചതാണ് അപ്പം നിങ്ങളൊരു ആറര ആറര ഏഴുമണി ആവുമ്പം എൻ്റെ വീട്ടിലെത്തിയാൽ മതി നമ്മൾ റെഡിയായി അപ്പോഴത്തേക്കും റെഡിയായിട്ടുണ്ടാവും നമുക്ക് എട്ടു മണിയോടെ എന്തായാലും പോകണം എന്നാലേ നടക്കൂ അപ്പം കറക്ട് നിങ്ങളൊരു എട്ടു മണിയാകുമ്പോൾ വരൂ കേട്ടോ